നീന്തൽ പഠിച്ച് തുടങ്ങുന്ന കുട്ടികൾ ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാല് ആദ്യംതന്നെ വെള്ളത്തിലേക്കെടുത്ത് ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടും അങ്ങനെ ചാടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ നമ്മള് ചാടിക്കഴിഞ്ഞാല് ചിലപ്പോള് നമുക്കത് കിട്ടിയിട്ടില്ല ആ ഒരു നീന്താന് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു അതൊരു തെറ്റുതന്നെയാണ് അതൊരു ഫോൾട്ട് തന്നെയാണ് അപ്പോള് നീന്തല് പഠിക്കുന്ന കുട്ടികൾ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ തെറ്റ് പലതും ചെയ്യാറുണ്ട് കാരണം ചില പിള്ളേര് നീന്തി പഠിച്ച് തുടങ്ങി ഏകദേശം കുറച്ചൊക്കെ നീന്തിത്തുടങ്ങുമ്പോള്ത്തന്നെ അവർ മലർന്നുള്ളൊരു നീന്തല് പ്രാക്റ്റീസ് ചെയ്തുതുടങ്ങും അത് വളരെ മണ്ടത്തരമാണ് നിങ്ങള് ഫസ്റ്റെന്നെ നന്നായിട്ടൊന്ന് നീന്തല് പഠിച്ച് കുറച്ച് എന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ഒരു വലിയൊരു സാഹസം കാണിക്കാവു അപ്പോള് നീന്തൽ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ചില പിള്ളേരൊക്കെ വെള്ളം പേടിയായിരിക്കും അങ്ങ കുട്ടികൾ വെള്ളത്തിലിറങ്ങി പ്രാക്ടീസാവുകതന്നെ ഫസ്റ്റ് വേണം പ്രാക്റ്റീന്ന അത് മാറ്റമെന്ന് പറഞ്ഞാല് ആ കുട്ടികൾ മറ്റു കുട്ടികൾ വെള്ളത്തിലിറങ്ങുന്നതു കാണുമ്പോള് ആ കുട്ടികൾക്ക് തോന്നണം ആ ഇവർക്ക് കുഴപ്പമില്ലല്ലോ പിന്നെനിക്കെന്ത് കുഴപ്പം എനിക്കിറങ്ങിയാൽ എന്താണ് കുഴപ്പം എന്നാ കുട്ടിയുടെ മൈൻഡില് തോന്നണം ആ രീതിക്ക് തോന്നിക്കണം കാരണം അവരുടെ ഫ്രെണ്ട്സിനോ മറ്റ് റിലേറ്റീവ്സിനോ അതായത് അവരെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ വിചാരിച്ചാലത് നടക്കുന്ന കാര്യമേയുള്ളു ഈ ഇവനെ വേറൊരു കുട്ടി വെള്ളത്തിലിറങ്ങി വളരെ നല്ല ആസ്വദിച്ച് നീന്തുമ്പോൾ ഈ കുട്ടിക്ക് തോന്നും എനിക്കെന്തുപറ്റി നീന്താൻ പറ്റാത്തെ എനിക്കിത്രേം വെള്ളത്തിനോട് പേടി എന്തിനാണെന്നാ കുട്ടിയുടെ മനസ്സിൽ തോന്നണം അപ്പോള് കുട്ടി തന്നെ വെള്ളത്തിലിറങ്ങാൻ ശ്രമിക്കും അപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് വെള്ളത്തിലൊന്നും ഇറങ്ങാത്തൊന്നുമില്ല നിങ്ങളും കുറച്ച് സപ്പോട്ടും കൂടെയൊക്കെ കൊടുത്ത് കൊച്ച് വെള്ളത്തിലിറങ്ങി പ്രാക്റ്റീസായി കുറച്ചൊക്കെ നീന്തി പഠിക്കുമ്പോള് ആ ഒരു വെള്ളത്തിനോടുള്ള പേടിയും മാറിക്കിട്ടും അപ്പോള് ആ കുട്ടിയും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കാരണം നീന്തൽ പഠിച്ച് കുറച്ചൊക്കെ പഠിച്ചതിന് ശേഷം നീന്തി തുടങ്ങുമ്പോള്ത്തന്നെ പിള്ളാര് ഒഴുക്കുള്ള വെള്ളത്തിലും ക്കെടുത്ത് ചാടാറുണ്ട് അപ്പോള് ഒഴുക്കുള്ള വെള്ളത്തിലൊക്കെ എടുത്ത് ചാടിയാൽ ഒഴുക്ക് കൊണ്ടുപോകും അല്ലേല് ചുഴിയെടുത്തു കൊണ്ടുപോകും ഈ രണ്ട് എങ്ങനെ പിന്നെ കടലിലൊക്കെ നീന്താമെന്ന് വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം നന്നായിട്ട് തിര ശക്തമായ തിരമാല വരുന്നത് കൊണ്ടുതന്നെ കടലിലൊക്കെ നീന്താൻ നല്ല പാട് തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നീന്തൽ ഇത്രയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ